സ്കൂളിനു പുറത്തൊള്ള ട്യൂഷനെ കുറിച്ചുള്ള അഭിപ്രായം എന്നുവെച്ചിട്ടുണ്ടെങ്കില് അതായത് നമ്മളിപ്പോ ഒരു സ്കൂളിൽ പോയി ചേർന്നു ഇപ്പോൾ ചിലപ്പോൾ ആ ക്ലാസ്സില് ചിലപ്പോ പത്തോ അറുപതോ കുട്ടികളുണ്ടാവും ടീച്ചർമാർ അവരുടെ കഴിവിനു പരമാവധി നമ്മളെ പഠിപ്പിക്കും പക്ഷെ അത് എല്ലാരടെ എടുത്തും അതായത് എത്തണം എന്നില്ല പഠിക്കുന്ന കുട്ടികൾ ആണെങ്കി ശ്രദ്ധിച്ചിരിക്കും പക്ഷെ എല്ലാരും ശ്രദ്ധിച്ചിരിക്കണംന്നൂല്ല അപ്പൊ നമ്മൾ ഇപ്പൊ ശ്രദ്ധിച്ചിരുന്നാ തന്നെ നമ്മൾ അതായത് ഒരുപ്രാവശ്യം പഠിക്കുന്നത് നമുക്ക് പിന്നേയും ഒന്നൂടെ കേട്ടിട്ടുണ്ടെങ്കില് നമ്മടെ മനസ്സില് മൈൻഡിൽ ഒന്നൂടെ അത് നിക്കും എപ്പോഴും നമുക്കതു ഓർമ്മയുണ്ടാവും അപ്പോൾ സ്കൂളിന് പുറത്തുള്ള ട്യൂഷൻന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ നമ്മളിപ്പോ സ്കൂൾന്ന് പഠിച്ചു പോന്നത് തന്നെ അത് നമുക്ക് ഒന്നൂടെ പറഞ്ഞു തരുമ്പോൾ നമുക്കത് മനസ്സിൽ അത് എപ്പഴും ഇരിക്കും